ആട് വളർത്തലാണ് എനിക്കറിയാവുന്ന ഒരു ചെറിയ സംരംഭം അത് ഇതിൽ രസകരമായ സംഭവം എന്ന് പറഞ്ഞാൽ ആട്ടിൻ കുട്ടികൾ തന്നെയാണ് ആട്ടിൻ കുട്ടികൾ നമ്മൾക് നമ്മളോട് ഭയങ്കര സ്നേഹമായിരിക്കും അത് നമുക്ക് നമ്മുടെ വീട്ടിൽ കയറിയിറങ്ങി കുഞ്ഞി കുട്ടികളെ പോലെ തന്നെ തുള്ളിച്ചാടുകയും നമ്മുടെ ഒപ്പം ഇരുന്ന് കഴിക്കുകയും നമ്മുടെ പ്ലേറ്റിൽ നിന്ന് കഴിക്കുകയും ഒക്കെ ചെയ്യുന്ന നമ്മുടെ ഒരു കൊച്ചു കുട്ടി എങ്ങനെയാണോ നമ്മളോട് പെരുമാറുന്നത് അതേ രീതിയിൽ അതുങ്ങൾ പെരുമാറും അതുങ്ങളെ കെട്ടിയിടാനോ ഒന്നും നമുക്ക് തോന്നുകയും ഇല്ല അത് കൂടാതെ അതിൽ നിന്ന് നമുക്ക് നല്ലൊരു വരുമാനവും ലഭിക്കും അതിന്റെ പാലിന് നല്ല വിലയാണ് ലിറ്ററിന് നൂറ് രൂപയെങ്കിലും വിലയുണ്ട് അത് നമുക്കൊരു വരുമാനമാണ് കൂടാതെ ഈ കുട്ടികൾ വലുതായി അവർക്ക് നമുക്ക് കുട്ടികൾ ഉണ്ടാകുമ്പോൾ അങ്ങനെ കുറേ ആട് സമ്പത്ത് നമുക്ക് വർദ്ധിക്കുന്നതാണ് അതുപോലെ തന്നെ നമുക്കത് അതിന് ഒരു പ്രായം ആയിക്കഴിഞ്ഞാൽ അതിനെ വിറ്റ് നമുക്ക് നല്ലൊരു വരുമാനം ലഭിക്കുന്നതാണ് അതാണ് ഇതിൽ ഏറ്റവും അസ നമ്മുടെ വീട്ടിൽ കുട്ടികൾ ഉണ്ടെങ്കിൽ കുട്ടികൾക്ക് കളിക്കാനായിട്ട് ഈ ആട്ടിൻ കുട്ടികളെ തന്നെ നമുക്ക് കൊടുക്കാൻ പറ്റും അതുങ്ങളുമായിട്ട് വെളിയിൽ ഇറങ്ങി കളിക്കുകയും അതുങ്ങളുടെ ഓട്ടം ചാട്ടം അതൊക്കെയാണ് രസകരമായ സംഭവം ആട്ടിൻകുട്ടി ഒരു കൊച്ചുകുട്ടിയെപ്പോലെ നമുക്ക് വളർത്താനും പറ്റും നമ്മുടെ കുട്ടികളുടെ കൂടെ അതിന് കളിക്കാനും പറ്റും നമ്മുടെ കുട്ടികൾക്ക് ഒരു കൂട്ടുകൂടെ കൂട്ട് പോലെയാണ് ഈ ആട്ടിൻകുട്ടികൾ ളെ എടുത്തുകൊണ്ട് നടക്കാം കൊച്ചുകുട്ടികളെ കൊച്ചുകുട്ടികളെ കൊച്ച് അതിന് താഴെ പ്രായമുള്ള കുഞ്ഞുങ്ങളെ എടുക്കുന്നത് പോലെ ഈ ആട്ടിൻ കുട്ടികളെ എടുത്തുകൊണ്ട് നടക്കാൻ പറ്റും അതിൻറെ കൂടെ ഓടിച്ചാടി കളിക്കാൻ അവർക്കൊരു കൂട്ടാവും അവർക്ക് വേറെ പാർക്കി പോവുവോ അങ്ങനെയുള്ള ഒര്ഉ കാര്യത്തിൻറെയും ആവശ്യമില്ലാതെ അവർ അതിന്റെ കൂടെ തന്നെ നടക്കുകയും അതിനെ പരിപാലിക്കുകയും പിന്നെ അതിന് തീറ്റ കൊടുക്കുകയും പുല്ല് പറിക്കാൻ പോവുകയും പുല്ല് പറിച്ചതിന് തീറ്റ കൊടുക്കുകയും ഒക്കെ കുട്ടികൾക്ക് തന്നെ ചെയ്യാവുന്നതാണ് അതുകൊണ്ട് കുട്ടികൾക്കും ഇതൊരു പാഠം ആവും മൃഗങ്ങളെ എങ്ങനെ സ്നേഹിക്കാം മറ്റുള്ളവരെ എങ്ങനെ സ്നേഹിക്കാം ഇതിൽ നിന്നെല്ലാം കുട്ടികളും ഈ ഒരു നാ സംരംഭത്തിലൂടെ പഠിക്കുന്നതാണ്